ഞാൻ ആണെങ്കിൽ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ നല്ല ചട്ടയും മുണ്ടുമൊക്കെ തയ്ക്കണം എന്നാണ് ചട്ടയും മുണ്ടുമൊക്കെ തയ്പ്പിച്ചു പഴയ അമ്മച്ചിമാർ ഇടുന്ന പോലെ ചട്ടയും മുണ്ടൊക്കെ തയ്പ്പിച്ചു ആൾക്കാർ ഇങ്ങനെ സ്ത്രീകളൊക്കെ ഇട്ടു കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗി അല്ലേ നല്ല അടുക്കൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഉടുത്ത് ചട്ടയൊക്കെ ഇട്ട് നേരിയതൊക്കെ പുതച്ചു ഇങ്ങനെ പോകുന്നത് കാണാൻ അതുകൊണ്ട് ചട്ട തയ്ക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് പിന്നെ പിന്നെ നല്ല ചുരിദാറുകളും അതുപോലെ തന്നെ സാരി ബ്ലൗസ് പിന്നെ എന്താണ് അതുപോലെയുള്ള ഇതൊക്കെ തയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് സാരി ബ്ലൗസും പിന്നെ പുതിയ പുതിയ ഒത്തിരി പുതിയ മോഡലുകളൊക്കെ വരുന്നുണ്ടല്ലോ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള പുതിയ മോഡലുകൾ മുട്ടിൻ്റെ താഴവരെ ഇറക്കമുള്ള ത്രീ ഫോർത്തുകൾ അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ അതൊക്കെ അല്ലേ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം അതുപോലുള്ള കുട്ടികൾക്ക് പറ്റിയ കുഞ്ഞ് കൊച്ചു കുട്ടികൾക്ക് ഇടാൻ പറ്റിയ നല്ല നല്ല ഭംഗിയായ ഡ്രസ്സുകളൊക്കെ തയ്ക്കാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഞാൻ അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പരീക്ഷണങ്ങളൊക്കെ നടത്തി കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഓരോന്ന് തയ്ച്ചൊക്കെ നോക്കുന്നുണ്ട് തയ്ച്ചു കുട്ടികൾക്കും നല്ല മുതിർന്നവർക്ക് ഇടാൻ പറ്റിയ നല്ല നൈറ്റികൾ നല്ല മാക്സികൾ നല്ല കോട്ടൻ്റെയും അതുപോലെ തന്നെ നല്ല ഡിസൈനുകൾ നല്ല എംബ്രോയിഡറി വർക്കുകളൊക്കെയുള്ള തുണികളൊക്കെ വച്ച് നല്ല നൈറ്റികളൊക്കെ തയ്ക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് ചുരിദാർ കട്ടിങ്ങും അത് തന്നെ അല്ലാത്ത സാധാരണ ചുരുക്ക് വച്ചുള്ള നൈറ്റികളും ഇതെല്ലാം തയ്കണമെന്ന് ആഗ്രഹം ഉണ്ട് ഒത്തിരി എന്താണ് പറയുക അത് തുന്നൽ എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ് ഭയങ്കര താല്പര്യമുള്ള ഒരു വിഷയമായിരുന്നു തുന്നൽ അതുകൊണ്ട് ചെറുപ്പം മുതൽ ചെറുതായിരുന്നപ്പോൾ തുന്നി പഠിക്കുമായിരുന്നു കൈ കൊണ്ട് തന്നെ തുന്നി സഹോദരൻ്റെ മക്കൾകൊക്കെ ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ടായിരുന്നു അത് കഴിഞ്ഞു അറിവായി കഴിഞ്ഞപ്പോൾ ചെറുതായി തയ്യൽ മെഷീൻ മേടിച്ചു തയ്യൽ പഠിച്ചു അന്നേരം തൊട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനി ആണെങ്കിലും അങ്ങനെ പരീക്ഷിച്ചു എന്തെങ്കിലുമൊക്കെ പുതിയ മോഡലുകളൊക്കെ തയ്ക്കണമെന്നും നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ നല്ല പുതിയ മോഡലിൽ ഡ്രസ്സുകളൊക്കെ തയ്പ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ കുർത്തികളും അതുപോലെന്നെ നല്ല നൈറ്റികളും സാരി ബ്ലൗസുകളും പിന്നെ പിള്ളേരുടെ പുതിയ ഫ്രോക്കുകളും പുതിയ ഫ്രോക്കുകളും നല്ല ഭംഗിയുള്ള മെറ്റീരിയലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം അതൊക്കെ വച്ചു നമുക്ക് തയ്ക്കാമല്ലോ നമുക്ക് വീട്ടിൽ വച്ചു തന്നെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം നല്ല നല്ല മെറ്റീരിയല് ഇപ്പം ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അപ്പം അത് വച്ചു പുതിയ മോഡല് ഫ്രോക്കുകളും അതുപോലെ തന്നെ കുർത്തികളും ഒക്കെ തയ്പ്പിച്ചു കൊടുക്കുവാൻ പറ്റും നമുക്ക് നല്ല ഒരു അതല്ലേ നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ഒരു നേരം പോക്കുമാണ് ഒരു നല്ല ഒരു വിനോദം വിനോദമാണ് അതോടൊപ്പം സമ്പാദിക്കാൻ പറ്റിയ നല്ല ഒരു മേഖലയാണ് നെയ്ത്ത് അതു കൊണ്ട് തന്നെ നെയ്ത്തിൽ ഒരുപാടൊക്കെ താല്പര്യമാണ് അതുപോലെ തന്നെ കൈകൊണ്ട് നെയ്ത് എടുക്കുന്ന ഡ്രസ്സുകൾ തയ്ച്ചിടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ തയ്ക്കാനും ശ്രമിക്കാറുണ്ട് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നെയ്ത്തും അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്കുകൾ പിന്നെ തയ്യൽ മെഷീനിൽ തയ്ക്കുന്നത് എല്ലാം എനിക്ക് ഇഷ്ടമാണ് തുന്നാൻ തുണി തയ്ക്കുന്നതല്ലാം വളരെ ഇഷ്ടമാണ് അതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട് നന്നായിട്ട് തന്നെ തയ്ച്ചു കൊടുക്കുന്നുണ്ട് കൂട്ടുകാർക്ക്